എത്ര സമയമായി നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളെന്നെ കുറേ പോസ്റ്റാക്കി ഞാൻ എൻ്റെ വർക്ക് നിർത്തിവച്ച് നിങ്ങൾക്കുവേണ്ടി വെയ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ടൈം കുറേ ആയി നിങ്ങളെ കമ്പനിയുടെ ഉടമയുമായി എനിക്കൊന്ന് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യണം നിങ്ങളുടെ കാര്യങ്ങള് അയാളോട് പറയണം അല്ലാതെ ഇത് നടക്കില്ല ഇപ്പോള് രണ്ടാം തവണയാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ഇതിന് മുൻപും ഇതുപോലെ ഒരുവട്ടം ഉണ്ടായിട്ടും ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു ഇനി എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല

അല്ലെങ്കിലും നിങ്ങൾ കൊണ്ടുവന്ന പ്രോഡക്റ്റും വലിയ ഒരു സുഖമില്ല എന്താണിത് ഞാൻ ഉദ്ദേശിച്ച പ്രോഡക്റ്റുമല്ല എത്തിയിട്ടുള്ളത് എനിക്ക് റിട്ടേൺ ഇപ്പോഴെ തന്നെ അയക്കണം ഞാൻ ഇതിൻ്റെ ഡെലിവറി ചാർജ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ എന്തു ചെയ്തിട്ടും കാര്യമില്ല എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്നോട്